എനിക്ക് വളർത്തുമൃഗങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അത് എല്ലാം എല്ലാ മൃഗങ്ങളെയും എനിക്കൊരുപാട് ഇഷ്ടമാണ് എൻ്റെ എൻ്റെ വീട്ടിലിപ്പോൾ ഉള്ളത് പൂച്ചയാണ് ഒരു അഞ്ച് ആറ് പൂച്ചയുണ്ട് അത് അവരെ എന്തുകൊണ്ടാണ് ഇഷ്ടം എന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് നോക്കിയിരുന്നാൽ മതി അവരുടെ കളിയും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ സങ്കടങ്ങളൊക്കെ മറക്കും അതുപോലത്തന്നെ അവരുടെ കളി കാണാനൊക്കെ നല്ല രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അതൊക്കെ കളിക്കുന്ന കാണാൻ നല്ല രസമാണ് പിന്നേ എനിക്ക് ഇനി ഒരു ഡോഗിനേയും കൂടി വാങ്ങിക്കണം എന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആഗ്രഹമാണത്